യുവാക്കളുടെ തൊഴില്ലിയായ്മ നമ്മുടെ നാട്ടില് വളരെ അധികം രൂക്ഷമാണ് വിദ്യഭ്യാസം ഉണ്ടായിട്ടുകൂടി പലയിതിൽ ജോലിക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് പ്രധാനമായിട്ടും ചെന്ന് ഇറങ്ങേണ്ട മേഖലളെന്ന് പറയുന്നത് ഐടി അതുപോലെതന്നെ ബിസിനസ്സ് സംബന്ധമായിട്ടുള്ള മേഖലകളിലാണ് ഏറ്റവും കൂടുതല് തൊഴിൽ ഇല്ലാത്ത ആളുകൾ ഉള്ളത് പ്രധാനമായിട്ടും ബികോമ് പോലുള്ള ഡിഗ്രികൾ കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ സർക്കാർ ചെയ്യേണ്ടത് കൂടുതൽ കമ്പനികളെ കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലോട്ട് വരുത്തുകയും പ്രധാനമായിട്ടും കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് യോജിച്ച രീതിയിലുള്ള കമ്പനികളെ കേരളത്തിൽ ന് നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് കമ്പനികൾ ഉയർത്തികൊണ്ട് വരികയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു പരിഹാരമാകും